മൽസ്യ ബന്ധനത്തിനു പോവുമ്പോൾ ചാകര ആയിരിക്കുമ്പോഴത്തേക്ക് വള്ളം ഇറക്കുമ്പോൾ അവർ ആഘോഷ പൂർവമായിട്ടാണ് വള്ളം ഇറക്കുന്നത് അത് ആഘോഷപൂർവമായിട്ട് വള്ളം ഇറക്കി കടലിൽ പോയി ചാകരയാണെങ്കിൽ ഇഷ്ടംപോലെ മൽസ്യം അവർക്ക് കിട്ടും കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷമാണ് അത് സന്തോഷിച്ചു ഉല്ലസിച്ച് അവർ പാട്ട് പാടി ആണ് വല വലിച്ച് കയറ്റുന്നതു തന്നെ വല വലിച്ച് കയറ്റുന്നത് മീൻ കാണുമ്പോൾ അവർക്ക് അതിയായ സന്തോഷം തോന്നും എന്തെന്നില്ലാത്ത സന്തോഷമായിരിക്കും അവർക്ക് ആ സമയത്തുണ്ടാവുന്നത് മീൻ ഇഷ്ടം പോലെ മീൻ കിട്ടിയാൽ വല്യ മീനൊക്കെ ആണെങ്കിൽ അവർക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമായിരിക്കും ഒരുപാട് സന്തോഷമായിരിക്കും അവർക്ക് ആ മീൻ കിട്ടും വലിയ മീൻ കിട്ടുമ്പോഴത്തേക്ക് അത് എല്ലാവരേയും വിളിച്ച് കൂട്ടി ആർപ്പോ വിളിച്ചാണ് അവർ കരയ്ക്ക് അടുപ്പിക്കുന്നത് അടുപ്പിച്ച് കഴിയുമ്പഴത്തേക്കും എല്ലാവരോടും പറയും വന്നു കാണാൻ പറയും അവർ പാട്ടുപാടുകയും ആഘോഷവായിട്ട് അവർ ആ വള്ളം വലിച്ച് കയറ്റി ആ മീനെല്ലാം പെറുക്കി എടുത്ത് സന്തോഷത്തോടെ അവർ സന്തോഷത്തോടെയാണ് അവർ അത് ഭയങ്കര പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് അവർ യാത്ര ചെയ്താണവർ ആ വള്ളത്തിൽ നിന്ന് അവർ വള്ളത്തിൽ അവർ മീൻ പിടിച്ചും വള്ളത്തിൽ യാത്ര ചെയ്താണ് അവർ മീനുമായിട്ട് അങ്ങ് പുറം കടലിൽ ന്നിന്ന് ഒക്കെ പോയാണ് അവർ ആ മീൻ ചിലപ്പോൾ കിട്ടുന്നത് ചാകരയുള്ള സ്ഥലത്ത് അപ്പം അവർ വള്ളവും ആയിട്ട് അവർ വരുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ബോട്ടാണെങ്കിലും ഒക്കെ അവർക്ക് സന്തോഷമാണ് ഏറെ മീൻ കിട്ടുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കരവായ സന്തോഷമാണ് അവർക്ക് എവിടെയാണ് ചാകരയെന്ന്ന്ന് വച്ചാൽ അവർ അവിടെ പോയാണ് മീൻ പിടിച്ചു സന്തോഷത്തോടെ വരുന്നത് കരക്ക് അടുപ്പിച്ച് കഴിയുമ്പഴത്തേക്കും അവർ എല്ലാവരും കൂടെ പാട്ട് പാടുകയും ഇങ്ങനെ ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ദൈവം ഞങ്ങൾക്ക് ഇത്രയും മത്സ്യങ്ങളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ ചില ചില ആൾക്കാർ ആൾക്കാർ ദൈവത്തിനോട് നന്ദി പറയുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ചില ആൾക്കാർ അങ്ങനെ ഒരു സന്തോഷം അവർക്ക് അത് പറഞ്ഞ അറിയിക്കാൻ വയ്യാത്ത ഒരു സന്തോഷമാണ് വലിയ് മീനൊക്കെ ചൂണ്ട ഇട്ടപ്പമ്ന് ആണെങ്കിലും പിടിക്കുമ്പഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമാണ് അത് വലിച്ച് പൊക്കി ആ മീൻ എടുത്ത് കരക്ക് ഇടുമ്പഴത്തേക്ക് എന്തൊരു സന്തോഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ ആണെങ്കിലും ചൂണ്ട ഇട്ട് ഒരു മീൻ പിടിക്കുമ്പോഴത്തേക്ക് ആ മീൻ ചെറുതാണെങ്കിൽ പോലും അവർക്ക് അത് കിട്ടുമ്പോഴത്തേക്ക് അമ്മേ അമ്മേ എനിക്ക് മീൻ കിട്ടി കണ്ടോ കണ്ടോ എന്നും പറഞ്ഞാണ് അവർ ഓടി വരുന്നത് അപ്പം അത്രയ്ക്ക് മൽസ്യങ്ങൾ കിട്ടും കടലിൽ പോയാൽ മീൻ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമാണ് സന്തോഷമായിരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമായിരിക്കും അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ഒരു മീൻ പിടിച്ചു കരക്കിടുമ്പോൾ ആ സന്തോഷം പോലെ തന്നെയാണ് അവർക്ക് ആ മീനിനോടുള്ള ആ മീൻ കിട്ടിയാൽ അവരുടെ ഉപജീവന മാർഗങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ അവർ അപ്പോൾ അവർ എന്തു മാത്രം സന്തോഷിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇവർ അനുഭവിക്കുന്നവരായിരിക്കും അന്ന് വിഷമിച്ചായിരിക്കും അവർ കടലിൽ പോയത് ഇന്ന് വല്ലതുമ്ന് കിട്ടുമോ ഇന്ന് വല്ലതും കിട്ടുമോ എന്നും പറഞ്ഞായിരിക്കും അവർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് അപ്പോൾ അവർക്ക് ആ മീൻ കിട്ടുമ്പോൾ അവർക്ക് അതിയായ സന്തോഷവും ആർത്തു വിളിച്ച് അവർ ആർത്തു വിളിക്കാൻ അവർക്ക് തോന്നും അത്രമാത്രം സന്തോഷം ആർത്തു വിളിക്കാൻ അവർക്ക് തോന്നും അത്രമാത്രം അവർക്ക് സന്തോഷം ഉണ്ടാവും ആ മീൻ കിട്ടുമ്പോഴത്തേക്ക് അവർ തന്നെ പാട്ടു പാടുകയും ഒക്കെ ചെയ്യും അങ്ങനെയാണ് എല്ലാ പരസ്പരം ഊർജം പകരുന്ന അതിനായിട്ട് അവർ എല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് നിന്നാണ് അവർ അതെല്ലാം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് മീൻ കിട്ടുമ്പോൾ കടപ്പുറത്തോട്ട് ചെല്ലണം അവർ വള്ളക്കാർ നമ്മളിൽ ഭയങ്കരമായ പാട്ടുകളും നല്ല സന്തോഷവും അവർ പങ്കുവയ്ക്കുന്ന ആ സന്തോഷത്തിൽ അവർ പങ്കുവയ്ക്കുന്ന അവർക്ക് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ചെല്ലുമ്പോൾ ചെന്നാൽ അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾക്ക് കാണാൻ പറ്റത്തുള്ളൂ കടപ്പുറത്ത് പോയി നിൽക്കണം അപ്പഴത്തേക്കും നമുക്ക് അത് അവർ പങ്ക് വയ്ക്കുന്ന പരസ്പരം പങ്കു വയ്ക്കുന്ന സന്തോഷങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അവർക്കും എന്തെന്നില്ലാത്ത ഒരു ആഹ്ളാദമായിരിക്കും അവർ അത് പറയുന്നത് അത്രയ്ക്ക് മാത്രം അവർക്ക് ഇഷ്ടമാണത് ആ കാര്യങ്ങളെല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ കിട്ടുമ്പഴത്തെന് അവരുടെ വീട് വീട് പുലർത്തി പോവാനായിട്ടവർക്ക് ഒത്തിരി ഇഷ്ടവാണ് അവർക്ക് അങ്ങനെയാണ് അവർ അതാണ് ഒരുമിച്ച് എന്തെങ്കിലും മുദ്രാ വാക്യങ്ങൾ പാട്ടുൾ പാടുകയും ഒക്കെ ചെയ്യുന്നത്